ഹലോ ആരാണ് വിളിക്കുന്നത് ആ ആ

അതെ അതെ ഇത് ആയുർവേദ മസാജിങ് സെൻ്ററാണ് ആ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആലപ്പുഴ ആ ഇവിടെ ഞങ്ങൾ തരിശാണ്

ഓക്കെ ആ ഉണ്ടല്ലോ ഉണ്ട് ചികിത്സയുണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു ആഴ്ച കിടത്തിയുള്ള ചികിത്സയുണ്ട് രണ്ട് അഴ്ചത്തെയുണ്ട് ഇരുപത് ദിവസത്തെയുണ്ട് പിന്നെ ഒരു മാസത്തെയുണ്ട് പിന്നെ കിഴി കുത്തിയുള്ള ചികിത്സയുണ്ട് അത് വേണമെങ്കിൽ അത് എടുക്കാം പിന്നെ എണ്ണത്തോണി കിടത്തിയിട്ടുള്ള മസാജിങ് ഉള്ള ചികിത്സയുണ്ട് പ്പ നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ റേറ്റ് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഒരു മാസത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു മുപ്പതിനായിരം രൂപയാകും ഒരു മാസം നിങ്ങൾ ഇവിടെ ചികിത്സിക്കുവാണെങ്കിൽ മുപ്പതിനായിരം രൂപ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവുമില്ല അ സുഖമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം ലീവ് ഉള്ളു ആ പറ്റുമല്ലോ ഇരുപത് ദിവസത്തേക്കുള്ള ആ അതെടുക്കുക അപ്പോൾ നിങ്ങൾ ആ അതിന് ഇരുപത് ദിവസത്തേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയെ ആകത്തുള്ളൂ ഒരു ആയിരം രൂപ വച്ചാണ് ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ചിലവാകുക നിങ്ങൾക്ക് ഫുഡും താമസ സൗകര്യവും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം അത് അനുസരിച്ചുള്ള ചിലവാണ് ആയിരം രൂപ വച്ച് ആവുമ്പം ഇരുപത് ദിവസത്തേക്ക് ഇരുപതിനായിരം രൂപയാകും നിങ്ങൾക്ക് ചിലവ് ആ അപ്പോൾ അത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെ വന്നു അഡ്മിറ്റ് ആയി നിങ്ങൾക്ക് ചികിത്സ തുടങ്ങാം ആ അന്നേരപെട്ടങ് നിങ്ങൾ ആ

ആ പിന്നെ പത്ത് ആ ആ ആ അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ വന്നു അഡ്മിറ്റ് ആകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ദിവസം നിങ്ങളുടെ പോകത്തും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർത്തു പോവുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആ ഇരുപതു ദിവസത്തേക്കുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഈ ആഴ്ച തന്നെ നിങ്ങൾ വന്നു അഡ്മിറ്റാകുക അന്നേരം അപ്പോഴത്തേക്കും നമുക്ക് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഏതായാലും ആ പറഞ്ഞു ഉണ്ട് ഉണ്ട് വാഹനമൊക്കെ കയറി വരും കുഴപ്പമൊന്നുമില്ല റോഡ് സൈഡ് ഹൈവേ സൈഡിലാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഏ അർ എം ക്ലിനിക് എന്നു പറയും അവിടെ വന്നാൽ മതി അതാണ് അവിടെ അവിടെ സെൻ്ററ് അ അ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് ഒരു താമസ സൗകര്യം എല്ലാം ഉണ്ട് നമുക്ക് അവിടെ എല്ലാം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അ അ അപ്പം ഞാൻ അവിടെ വച്ചു കാണാം നമുക്ക് കേട്ടോ കുഴപ്പമില്ല അവിടെ വച്ചു അ വന്നാൽ മതി നിങ്ങൾ കേട്ടോ ഓക്കെ